ഹലോ ആരാ അതേയല്ലോ ആ എന്നാണ് ഹലോ ആ എന്താ ആണോ എന്നത്തേക്കാണ് ചേച്ചി ഡെയ്റ്റ് ഏത് ദിവസമൊക്കെയാണ് ആ കല്ല്യാണം മാത്രമേ ഉള്ളോ മനസ്സമ്മതം അങ്ങനെ മധുരംവെപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയുണ്ടോ മൂന്ന് ദിവസത്തേക്ക് വേണമല്ലേ അപ്പം ആ ആ അത് ഡെയ്റ്റൊന്ന് പറയാമോ ഡെയ്റ്റ് ആ ഓഗസ്റ്റ് പതിനഞ്ചിന് മധുരം വെപ്പ് മനഃസമ്മതം മനഃസമ്മതം ആ മധുരം വെപ്പ് വൈകീട്ടല്ലേ വൈകീട്ട് ആ ഇരുപതിന് എന്നാണ് കല്ല്യാണം ആ ആ ശരി ശരി ആ അഞ്ച് മണിയൊക്കെയാവുമ്പോഴത്തേക്കും അങ്ങ് ഞങ്ങളവിടെ കാണണമല്ലേ ഓക്കെ ഓക്കെ ആ മനഃസമ്മതത്തിന് രാവിലെ ആ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെയാവുമ്പം വന്നാൽ മതിയല്ലോ അല്ലേ മനഃസമ്മതത്തിന് പത്തര കഴിയും പള്ളി ആ അതിന് മുമ്പെത്താം എത്താം ആ ആ ഇത് മൂന്ന് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ചേച്ചി ഒരു അമ്പതിനായിരം രൂപയാകും മൂന്ന് ഇതിനും കൂടി ഒന്നിച്ച് ഞങ്ങൾ ആൽബമെല്ലാം റെഡിയാക്കി നല്ല പോകാത്ത രീതിയിലുള്ള പ്രിൻ്റൊക്കെ എടുത്ത് വരുന്നതിന് അത് ഞങ്ങൾക്കൊരു അമ്പത് രൂപയൊക്കെയാകും ആ പിന്നെ അത് ഇപ്പം നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് നോക്കാം കഴിയട്ടെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്താൽ പോരേ പോയോ തീം ചേച്ചി അപ്പം ഫോട്ടോ മാത്രമല്ല വീഡിയോ വേണ്ടേ വീഡിയോയും വേണം ആ അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ ആ ചേച്ചിക്ക് വേണ്ടിയാണ് നാല്പത് നാല്പത്തഞ്ചൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു നാല്പത്തഞ്ചിൽ നമ്മൾക്കെന്തെങ്കിലുമൊക്കെ ലാഭം നമുക്ക് എന്തെങ്കിലും ലാഭം വേണ്ടേ അതുകൊണ്ട് ഇപ്പം ഞാൻ വേറെ ആളുകളെയും കൂടെ കൂട്ടിയല്ലേ ഒറ്റയ്ക്കല്ലല്ലോ ഇത്രയും പേർക്ക് ഞാൻ ശമ്പളം കൊടുക്കേണ്ടതൊക്കെയല്ലേ അപ്പം ആ അതിൻ്റെയും കൂടെ ഞാൻ ഒത്തിരി ലാഭമൊന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാനങ്ങനെ ലാഭം നോക്കുന്നില്ല

ആ ആ നാല്പതോ നാല്പത്തെട്ടോ ആ നോക്കട്ടെ ചേച്ചി നാല്പത്തഞ്ച് നമ്മൾ ഇപ്പം ഒത്തിരി അങ്ങ് കുറച്ചില്ലേ ഓക്കെ കുറച്ചിട്ടുണ്ട് ആ ഇനി നോക്കട്ടെ ചേച്ചിയുടെ ആ ഇത് വച്ച് ഞങ്ങൾ ഒന്നുകൂടി നോക്കട്ടെ എല്ലാവരും കൂടെയൊന്ന് സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ നടത്താം ഇപ്പോൾ ഈ മൂന്ന് ഡെയ്റ്റാണല്ലോ ബുക്ക് ചെയ്യേണ്ടത്

അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നോ ആ ആ ആ ശരി എന്നാൽ ഓക്കെ ചേച്ചി